ഹലോ ആണേ മീഷോന്ന് ഒരു ബാഗ് വാങ്ങിയിട്ട് എൻ്റെ അപ്പോ ഇത് എന്ത്ന്നാ ഏതോ ഞാൻ ഓർഡർ ചെയ്തെ ഏതോ അനക്ക് കിട്ടിയത് ഏതോ കിട്ടിയതാണേ പോട്ടെ അത് വെച്ചിട്ട് ഞമക്ക് നോക്കാമെന്ന് വിചാരിക്കുക മൊത്തം പോയിനി ഡാമേജ് ആയ സാധനം ഇതെന്താണ് ചെയ്യേണ്ടേ ഇനിയിപ്പം റിട്ടേൺ അടിക്കാനും പറ്റൂല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കി നോക്കിനി ഇനിയിപ്പം റിട്ടേൺ അടിക്കാനും പറ്റാത്ത അവസ്ഥയായി പിന്നെ മീഷോനേ ഉള്ളൊരു വിശ്വാസത്തിൽ ഞമ്മൾ ഓർഡർ ചെയ്തെയാന്ന് ഇതുവരെ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ആദ്യമായിട്ടാന്ന് ഇങ്ങനെ ഇണ്ടാവുന്നത് ഫുൾ ഡാമേജ് ആയിട്ടാണുള്ളത് എന്തെങ്കിലും ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചാൽ അതിനും പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടേ ഇനിയിപ്പം കുട്ടിക്ക് ഇനിയിപ്പം സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കേണ്ട ബേഗ് അല്ലേ ഇനിയിപ്പം പെട്ടെന്ന് ഇനിയിപ്പം പോയി വാങ്ങാമെന്ന് വെച്ചാൽ നല്ലൊരു നമ്മക്ക് പറ്റുന്ന പൈസക്ക് ആയതു കൊണ്ടാണ് ഇയിനാത്ത് എല്ലാ ഓർഡർ ചെയ്തേ ഇതിപ്പോൾ ഇങ്ങനെ നമ്മളെ പറ്റിക്കും എന്ന് നമ്മൾ അറിയുന്നില്ലേനല്ലോ ഇതിന്നിപ്പോൾ എന്താ ചെയ്യുവാന്നാണ് ആലോചിക്കുന്ന വല്ലാണ്ട് പോയിട്ടാണ് ഉള്ളേ ഇത് മൊത്തം കീറി എന്താ പറയുക അത്രയ്ക്ക് എന്താ പറയുക പിഞ്ഞി തുണി പോലത്തെ നേരിയ തുണിനെ കൊണ്ട് എന്തോ ആക്കി വെച്ചിട്ട് തന്നീനി മൊത്തം കള്ള കളികളാണ് ഇതെന്താ ചെയ്യേണ്ട ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആദ്യായിട്ടാണ് ഇത് വല്ലാത്ത ഒരു ഇതായിപ്പോയി സമയമില്ലാത്ത സമയത്ത് ആയി പോയി ഇങ്ങനത്തെ ഒരു ചതി ഇനിയിപ്പോൾ എന്താ ചെയ്യുക മൊത്തം പോയിന് മൊത്തം പോയിനാണേ ഒരു കുറച്ച് ഞമക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കുമെന്ന് വിചാരിക്കാം പൈസേൻ്റെ സാധനം അല്ലേ തിരിച്ചയക്കാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടന്നാണ് ഞാൻ ഇതാലോചിക്കുന്നേ